ഇതുവരെ ജോലി സ്ഥലത്തു ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ബിക്കോസ് ഞങ്ങൾ സ്റ്റുഡന്റസാണ് അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല അഥവാ വരാണേൽ തന്നെ കുറച്ച് നേരം മൈൻഡ് റിലാക്സ് ചെയ്യാൻ എന്നിട്ട് ശരിയാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് നേരമൊന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യുക ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ഒന്ന് ഫ്രീയായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് പ്ലെഷേർസായിട്ടുള്ള ഗെയിമുകളുണ്ടാവുമ്പോൾ അത് കളിക്കുക അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കുക പുറത്തൂടെ അങ്ങനെക്കെ അങ്ങനാണെങ്കിൽ കുറച്ച് നമുക്ക് മനസിക പ്രയാസങ്ങളൊക്കെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടീട്ട് ഇത് സഹായിക്കും പിന്നെ ജോലി സ്ഥലത്ത് പേഴ്സണൽ കാര്യങ്ങൾ മാത്രമായി പേഴ്സണലി വരുന്ന ഇഷ്യൂസ് മാത്രം ഹാൻഡിൽ ചെയ്യാൻ നിക്കാ പുറമേ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ കമ്പനിയിൽ കമ്പനിയിലുള്ള ആൾക്കാർക്ക് വരുന്ന ഇഷ്യൂസ് അവർ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ കേറി ഇടപെടാതിരിക്കുക കാരണം ആ കമ്പനി പറയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെ ആണ് അതുകൊണ്ട് പൊറമെന്നുള്ള ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ അവരുടെ പേർസണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനത്തെ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കേറീട്ട് എടപെടാതിരിക്കുക സ്വന്തം കാര്യം നോ നോക്കീട്ട് ചെയ്യുന്നതാവും ബെറ്റർ അങ്ങനെയാവുമ്പോൾ നമുക്കൊരുപാട് സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം